ഹലോ സ്വിഗ്ഗി അല്ലേ ഞാൻ അവിടെ നിന്ന് കുറേ നേരം മുന്നേ കുറച്ച് ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ വിശ്വസിച്ചാണ് ഓരോ ഫുഡും നമ്മൾ ഓർഡർ ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ പാക്കേജിങ് ഇത്തവണ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് ഫുൾ നശിച്ചു പോവുകയുണ്ടായി അത് നമുക്ക് കഴിക്കാനും പറ്റില്ല ആ എമൗണ്ട് ഞങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്തു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് കാരണമാണ് ഇത്രയും ഫുഡ് വേസ്റ്റ് ആയത് അതുമാത്രമല്ല ഞങ്ങൾക്ക് വലിയ ഒരു തുകയും നഷ്ടമായി അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്സ് മനസിലാക്കി ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റീഫണ്ട് ചെയ്യണം